ആഹ് എന്താണ് വേണ്ടത് ഏത് ബുക്കാണ് ഏത് ടോപ്പിക്കിൻ്റെയാണ് എൻജിനിയറിങ്ങാണോ ഏത് ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആണോ സിവിലാണോ അതോ മെക്കാണോ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് അത് നാലാമത്തെ റാക്കില് നോക്കിയില്ലേ കിട്ടിയില്ലാ അത് പേര് എഴുതിയ ബുക്കല്ല അവിടെയിരിക്കുന്നതെന്നാണോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ അത് മെയ്ബി ആരെങ്കിലും ഏതെലുമിതേപ്പോലത്തെ സ്റ്റുഡൻറ്സ് വന്ന് മാറ്റിയിട്ടുണ്ടായിരിക്കും ബുക്കിൻ്റെ പേര് അത് അവൈലബിൾ ആണോയെന്നുള്ളത് ചെക്ക് ചെയ്തോ ഏതാ ആ ബുക്ക് നിങ്ങളാ തിരയുന്ന ബുക്ക് ലൈബ്രറിയിൽ അവൈലബിൾ ആണോയെന്നുള്ളത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോ അവൈലബിൾ ആണെന്നാണോ കണ്ടത് അപ്പോ അത് സ്റ്റുഡൻറ്സ് ആരെങ്കിലും മിസ്പ്ലേസ് ചെയ്ത് വെക്കാൻ ചാൻസ് കാണും അപ്പോ ഇനി ഒരു ചെക്കിങ്ങ് വൈകുന്നേരം ചെക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കാം വൈകുന്നേരത്തെ ചെക്കിങ്ങിലേ അറിയുകയുള്ളൂ ഇതുവരെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ കിട്ടാനായിട്ട് നിങ്ങൾക്കെല്ലാ സ്ഥലത്തും തിരയുകയെന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളത് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വൈകുന്നേരം തിരഞ്ഞാലേ കിട്ടുകയുള്ളൂ അത് അത്രയും വലിയ ലൈബ്രറി ആണല്ലോ എവിടെയാ വെച്ചിട്ടുണ്ടാവുക എന്നറിയില്ല അതേതെങ്കിലും സ്റ്റുഡൻറ്സ് മാറ്റി വെച്ചതാണോന്ന് പോലുമറിയില്ല അത് നാളെ രാവിലെ വന്നുകഴിഞ്ഞാൽ എടുത്ത് വെക്കാം പിന്നെ വേറെ കാര്യമുള്ളത് സിസ്റ്റത്തിലിനി എൻട്രി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതും അറിയില്ല സംഭവം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുതന്നെ അതില് മെയ്ബി അതിലെന്തേലും ഫോൾട്ട് വന്ന് ബുക്ക് മാറി ആയിട്ടുണ്ടോന്നുള്ളത് അതും ചെക്ക് ചെയ്യണം അപ്പൊ എന്തായാലും നാളേക്കേ റെഡി ആവുകയുള്ളൂ നാളെ രാവിലെ വന്ന് കഴിഞ്ഞാൽ കിട്ടും ആഹ് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഇന്ന് തിരയുക തന്നെ വേണം ഒരുപാട് ബുക്കുണ്ടല്ലോ എവിടേക്കാ മിസ്പ്ലേസ് ആയെന്നുള്ളത് ആ റാക്കിലെവിടെയും കാണുന്നില്ല അപ്പോ മെയ്ബി അത് മിസ്പ്ലേസായതായിരിക്കും ഇനിയത് അവിടെ തിരിച്ച് റീസ്റ്റോക്ക് ചെയ്ത സമയത്ത് നമ്പർ മാറിയതാണോ അതോ ഇനി ആരെങ്കിലും മനപ്പൂർവം എടുത്ത് മാറ്റി വെച്ചതാണോന്നറിയില്ല അതിനെ പറ്റിയിട്ട് നോക്കേണ്ടി വരും

ഡെയിലി അല്ല വീക്കിലി ചെക്കിങ്ങാണ് വരുന്നത് സാറ്റർഡേസ് ആ അപ്പോ ഈ വീക്കായിട്ടില്ലല്ലോ ലാസ്റ്റ് ഈ വീക്ക് ലാസ്റ്റ് ആവുമ്പോളാണ് ചെക്കിങ്ങ് വരുന്നത് ഇത്രയും വലിയ ലൈബ്രറിയായത് കൊണ്ട് ഡെയിലി ചെക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വീക്കിലിയാണ് ചെയ്യുന്നത് ഇന്നിപ്പോ ഇപ്പോ ഇവിടെ തിരക്കാണല്ലോ അപ്പൊ ആൾക്കാരുണ്ട് ഇപ്പോ ഇവര് പോയ ശേഷം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണിവിടെ നോക്കല് നടക്കുള്ളൂ ഇപ്പൊ ബിസി ടൈം ആണല്ലോ അതിൻ്റെയിടയിൽ ചെക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പേരിവിടെ വന്നിട്ട് രജിസ്റ്ററിൽ എഴുതി വെച്ചാൽ മതി നാളേക്ക് എടുത്ത് വെക്കാം ഓക്കെ എന്നാലങ്ങനെ എഴുതി വെച്ചാൽ മതി എഴുതി വെച്ചാൽ മതി നാളെ രാവിലെ വന്നാൽ കിട്ടും ശരി